മലയാള ഭാഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്നു പറഞ്ഞാൽ അമ്പത്തിയാറ് അക്ഷരമുണ്ട് അത് പഠിച്ചെടുക്കാന് ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെയാണ് ആള്ക്കാർ കരുതുന്നത് അതിപ്പം ഏത് ഭാഷയിലായാലും നമുക്ക് പഠിച്ചെടുക്കാന് ഏത് ഭാഷായാലും പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെന്ഡ് ചെയ്താൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റൂ അതുപോലെ തന്നെയാണ് മലയാള ഭാഷയും അത് പഠിക്കാന് പറ്റത്തില്ല അത് ഭയങ്കര ടഫ്ഫാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടി ഇപ്പം ഏത് ഭാഷ പഠിക്കണമെങ്കിലും നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെന്ഡ് ചെയ്താലെ ഒക്കുകയുള്ളൂ അപ്പം ചിട്ടയായിട്ട് നമ്മൾ അക്ഷരങ്ങളും ഒക്കെ പഠിച്ച് എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാന് പറ്റുന്ന ഒരു ഭാഷയാണ് മലയാളമെന്ന് പറയുന്നത് ഫോറിനേഴ്സുതന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഭാഷയിൽ ആകൃഷ്ടരായിട്ട് അവരും ഈ ഭാഷ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തു കൊണ്ടും ഒരു നല്ല ഭാഷയാണ് മലയാളം എന്നാണ് എന്റെ ഒരഭിപ്രായം